ഈയെടായിട്ടൊരു സിനിമ ഇറങ്ങി ആടുജീവിതം പറഞ്ഞെ അത് ഇന്റിത് കേട്ടപ്പോഴാണ് എനിക്ക് ബുക്ക് വായിച്ചാള്ള് വല്ലാത്തൊരാഗ്രഹം തോന്നിയത് അപ്പോള് ആ ബുക്ക് വാങ്ങി വായിച്ചപ്പോള് ഭയങ്കര സങ്കടം മനസ്സിനൊക്കെയൊരു എന്തൊക്കെയോ ഒരു ഗതികേടൊക്കെ തോന്നുക അയാളെ അയാള് മരുഭൂമിയില് ഒറ്റപ്പട്ടതും ഭക്ഷണം കിട്ടാതിരുന്നതും പിന്ന ഹക്കീം എന്നു പറഞ്ഞൊരു മന്സന് ഉണ്ടായിരുന്നു ഭഷണം കിട്ടാതെ വെള്ളമൊന്നുങ്കിട്ടാതെ മണലൊക്കെ തിന്ന് ചോര ഛർദ്ദിച്ച് മരിച്ചെന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ കേട്ടപ്പോള് ഭയങ്കര സങ്കടം തോന്നി പിന്നെ പാല് കുടിച്ചങ്ങാണ്ട് ആണ് ജീവിച്ചീൻ്റത് ആടിൻ്റെ പാല് ഭഷണമൊന്നും കിട്ടേയ്റ്റ് കുളി കുളിക്കാന് വെള്ളമില്ല പിന്നെ കുടിച്ചാന്തന്നെ വെള്ളമില്ല അങ്ങനെ അയാളെ ജീവിതകഥ ഒക്കെ ഇങ്ങനെ കേട്ടപ്പോള് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുക പിന്നയാള് ചെന്നന്നവിടൊരു ആളിണ്ടായിര്ന്നു എന്നറിഞ്ഞു പിന്നെ നോക്കുമ്പോള് അതിനെ കാണണില്ല പിന്നെ കുറേ ദിവസം ഇങ്ങനെ നടന്ന് മരുഭൂമീക്കൂടെ ആടിനെയും കൊണ്ട് മേച്ച് നടന്നപ്പോള് അവടെ പുതിയ മണ്ണ് മണല് പുതിയതായിട്ടിങ്ങനെ കണ്ടപ്പോള് അത് നോക്കിയപ്പോള് അതവിടെ മരിച്ച് അതിൻ്റെ മൊൾക്കൂടെ മണലൊക്കെ വീണ് കെടക്കണ്ന്നക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇങ്ങനെ കേട്ടപ്പോള് വല്ലാത്ത ഒരു സങ്കടന്തോന്നി പിന്നെ ഇപ്പെന്താണ് രണ്ട് മൂന്നിസം ഓടീട്ടാണ് പിന്നെയവര് അവിടുന്ന് രക്ഷപ്പെട്ടതെന്നൊക്കെ പറഞ്ഞ് ഓടി കാലൊക്കെ മുറിയായി തളർന്ന് അങ്ങനെയൊക്കെ ഭയങ്കരമൊരു സങ്കടമുള്ളൊരു ഇതേയിരുന്നു അതിൻ്റെ ഇത് കേട്ടിട്ട്